ഹലോ മാഡം വെൽക്കം ടു മൈജി മാഡം എന്താ വാങ്ങുന്നത് ആ ഓക്കെ മാഡം ആദ്യം ഏതാണ് നോക്കുന്നത് മാഡം ആ ടി വി അങ്ങോട്ടാണ് നമ്മൾക്ക് അങ്ങോട്ട് പോവാം മാഡം എങ്ങനത്തെ ടി വിയാണ് ഉദ്ദേശിക്കുന്നത് എൽ ഇ ഡി ആണോ അതോ സാധാരണ ബെയ്സ് മോഡൽ ആണോ ആ ഏത് കമ്പനിയാണ് പ്രിഫർ ചെയ്യണത് മാഡം നമ്മുടെ ഇവിടെ ഇല്ല കമ്പനി ഏതു വേണം ഇവിടെ എൽ ജി ഉണ്ട് സാംസങ്ങിൻ്റെ ഉണ്ട് ഏതാണ് വേണ്ടത് എൽ ജിയും മാഡം ഒന്ന് ഡിസ്പ്ലേ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണെന്ന് നോക്കിയിട്ട് ഒന്നു സെലക്ട് ചെയ്താലും മതി ആ ഇതാണ് മാഡം എൽ ജിയുടെ തെർട്ടി ടു ഇഞ്ച് പിന്നെ ഇത് സാംസങ്ങിൻ്റെ തെർട്ടി ടു ഇഞ്ച് മോഡൽ എൽ ജി മതി അല്ലേ മാഡം എങ്ങനെയാണ് ഇ എം ഐ ആണോ അതോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ആ ഓക്കെ മാഡം വാറണ്ടി വന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ ത്രീ ഇയേർസ് ആണ് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ വന്ന് എടുക്കുന്നതുകൊണ്ട് ഫൈവ് ഇയേർസ് നമ്മൾ നമ്മുടെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് എക്സ്ട്രാ ഒരു തൗസൻ്റ് റുപ്പീസ് പേ ചെയ്താൽ നമ്മൾ ഫൈവ് ഇയേർസ് വാറണ്ടി വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒക്കെ നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത് മാഡം ഇത് ഫോർട്ടി ഫൈവ് തൗസൻ്റിൻ്റെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നിട്ട് തേർട്ടി തൗസൻ്റ് ആണ് തെർട്ടി തെർട്ടി ത്രീ സീറോ അതായത് ഫോർട്ടി ത്രീ തൗസൻ്റിൻ്റെ ആ റേറ്റ് ഉള്ള സംഭവമാണ് അപ്പം നമ്മൾ തെർട്ടി തൗസൻ്റിനാണ് കൊടുക്കുന്നത് അതെ അതെ അതെ ഇങ്ങ് ആ ഇങ്ങ് വാ വാഷിംഗ് മെഷീൻ വന്നിട്ട് നമ്മൾക്കിപ്പം വേൾപൂൾ ഉണ്ട് ഗോദ്റെജിൻ്റെ ഉണ്ട് ഏതാണ് മാഡം വേണ്ടത് ഓട്ടോമാറ്റിക് ഉണ്ട് മാന്വൽ ഉണ്ട് അത് ഫ്രണ്ടിലെ അല്ലേ അപ്പം ഗോദ്റെജിൻ്റെ എടുക്കാം മാഡം ഓട്ടോമാറ്റിക് മതി ഇല്ലേ അതിൻ്റെ കൂടെ ഡ്രയർ അത് വേണോ ഡ്രയർ ഫെസിലിറ്റി ഉള്ള ആ ഓക്കെ മാഡം അപ്പോൾ ഞങ്ങൾക്ക് വേൾപൂളിൻ്റ എടുക്കാം ഇത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് തൗസൻ്റ് ആണ് രണ്ടു കളറിൽ അവൈലബിൾ ആണ് ഒന്ന് റെഡ് ആൻഡ് വൈറ്റിലും പിന്നെയൊന്ന് ഫുൾ ബ്ലാക്കും ഓക്കെ മാഡം ഇത് ഫിഫ്റ്റി സിക്സ് തൗസൻ്റ് ആണ് എം ആർ പി റേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഫിഫ്റ്റി ഫോർ തൗസൻ്റും

വാറണ്ടി വന്നിട്ട് ഇതിന് ടു ഇയേർസേ ഉള്ളൂ മാഡം ആ ആ ടു ഇയേർസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്തു തരും അതിന് ശേഷം ആണെങ്കീങ്കിൽ കിട്ടില്ല മാഡം വല്ല പൊളിക്കണ കടയിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും ഓക്കെ മാഡം അപ്പം ഇത് രണ്ടും സെലക്ട് ചെയ്യുകയല്ലേ ടി വിയും ഇതും കൺഫോം ചെയ്യുകയല്ലേ ആ ഓക്കെ മാഡം നമ്മൾക്ക് ഇനി ഫ്രിഡ്ജിലോട്ട് പോവാം ഡബിൾ ഡോർ പറയുമ്പം നമ്മൾ അലമാരപോലെ തുറക്കുന്നത് വേണോ അതോ ലെയർ പോലെ തുറക്കുന്നത് വേണോ ഓക്കെ മാഡം ആ ആ ആ സൈഡിൽ ആണ് അങ്ങോട്ട് പോവാം ആ മാഡം സാംസങ്ങിൻ്റെ ഉണ്ട് പിന്ന അതുപോലെ ഗോദ്റെജിൻ്റെ ഉണ്ട് വേൾപൂളിൻ്റെ ഉണ്ട് ഇതിൽ ഏതാണ് മാഡം വേൾപൂൾ മതിയല്ലേ അത് വന്നിട്ട് ആ ഇതിന് വന്നിട്ട് വൺ ലാക്ക് ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ട് ആ റേറ്റ് വൺ ലാക്ക് ഫൈവ് തൗസൻ്റ് വരുന്നത് ഈ ഫ്രിഡ്ജ് എല്ലാം പിന്നെ മെറൂൺ കളറോ മെറൂൺ കളർ അവൈലബിൾ അല്ല മേഡം അത് ഇനി അവർ കമ്പനി ഉണ്ടാക്കണം അങ്ങനത്തെ കളർ ഇല്ല ഇപ്പോൾ സിൽവറും ബ്ലാക്കും മാത്രമേ ഉള്ളൂ തരേണ്ട മേഡം വരുമ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട് മേഡം ഇപ്പം വൺ ലാക്ക് ഫൈവ് തൗസൻ്റ് മാഡം വേണമെങ്കിൽ നമ്മൾ അല്ല അത് കമ്പനി ഇറങ്ങുന്നില്ല ഇനി വേണമെങ്കിൽ മാഡത്തിന് ഇത് വാങ്ങിയിട്ട് വീട്ടിൽ പോയി പെയിൻ്റ് അടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം സ്പ്രേ പെയിൻ്റോ അല്ല നമ്മൾ വേറെ സർവീസ് സെൻ്ററിൽ കൊടുത്താൽ കളർ മാറ്റി കൊടുക്കും ആ എ സി ആണോ മാഡം ഇത് ഞാൻ ഇത് പക്ഷെ ഇതിൻ്റെ ഗോദ്റെജിൻ്റെ മെറൂൺ കളർ ഉണ്ട് ആ ഓക്കെ മാഡം അപ്പം ഇനി എ സിയിലോട്ട് പോവാം

എ സി ഇപ്പം നമ്മളുടേതിൽ കറണ്ട്ലി അവൈലബിൾ ലോയ്ഡിൻ്റെ മാത്രമേ ഉള്ളൂ ലോയ്ഡും എൽ ജിയും മാത്രമേ ഉള്ളൂ

ഒരു ലിറ്ററിൻ്റെ വേണോ അതോ വൺ പോയിൻ്റ് ഫൈവ് ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ളത് വേണോ ആ ഓക്കെ മാഡം മാഡം ഏതാണ് ലോയ്ഡ് ആണോ വേണ്ടത് ആ ഓക്കെ മാഡം ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക് ആണ് ഇത് റേറ്റ് വന്നിട്ട് സെവെൻ്റി ഫൈവ് തൗസൻ്റ് വരുന്നുണ്ട് എം ആർ പി അതു നമ്മൾ കുറച്ച് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് തൗസൻ്റിന് തരാം ഇപ്പോൾ ഓഫറാണ്

ആ ഓക്കെ മാഡം ആ ഓക്കെ മാഡം മാഡത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഞങ്ങൾ അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് തരാം മാഡം നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിട്ട് പേയ്മെൻ്റ് മാത്രം അടച്ചാൽ മതി ഇനി ഇതിൽ ഒന്ന് അഡ്രസ് എഴുതി തന്നാൽ മതി ആ ഓക്കെ മാഡം ഞങ്ങളുടെ ആ ഓക്കെ മാഡം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കും കുറച്ച് കഴിഞ്ഞാൽ മാഡത്തിനെ എന്തെങ്കിലും അഡ്രസ്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും ആ പ്രേം എന്ന് ആയിരിക്കും അയാളുടെ പേര് കേട്ടോ മാഡം പ്രേം കുമാർ ആ അങ്ങേര് അങ്ങ് പെങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ മാഡം താങ്ക് യു ഓക്കെ